നമ്മുടെ ജന്മനാടായ മലയാള ഭാഷയെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളത് കൂടുതൽ സംസാരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ നാടിനുണ്ടാകുന്ന ഒരു വളർച്ചയുണ്ട് ആ വളർച്ച നമ്മുടെ നാടിനെ മറ്റുള്ളവർ അംഗീകരിക്കും നമ്മുടെ ഭാഷയുടെ നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനവും ഒക്കെ നമ്മളുടെ ഒരു സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുന്നതിനൊക്കെ നമുക്ക് മുൻപോട്ടു പോകുവാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ ഭാഷ മലയാള ഭാഷ നമ്മൾ നമ്മുടെ മാതൃ ഭാഷയായ മലയാളത്തെ നമ്മൾ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും നമ്മളുടെ ഭാഷയോട് ഒരു സ്നേഹം ഉണ്ടാകുകയുള്ളു എങ്കിലേ നമ്മുടെ ഭാഷയെ നമുക്ക് അംഗീകരിക്കുവാനായിട്ട് മറ്റുള്ളവർ അംഗീകരിക്കാനായിട്ട് തുടങ്ങുകയേ ഉള്ളൂ നമ്മുടെ ഭാഷയെ നമ്മൾ തന്നെ നമ്മുടെ മലയാള ഭാഷയോട് കൂടുതൽ മാതൃ ഭാഷയോടു കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും മറ്റുള്ളവർക്കത് കണ്ട് നമ്മുടെ പൈതൃക സാംസ്കാരിക പൈതൃക സംരക്ഷിക്കണേൽ നമുക്കു തന്നെ അതിന് മുൻകൈ എടുക്കാം കാരണമെന്നു വെച്ചാൽ ഇനി ഉള്ള കാര്യങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് ഭാഷകളുടെ പുറകെ പോകുന്ന നമ്മൾക്ക് നമ്മളുടെ മലയാള ഭാഷയെ മലയാളം ഭാഷയെ തന്നെ മറ്റുള്ളവരോട് മാതൃ ഭാഷയിൽ തന്നെ മറ്റുള്ളവരോട് സം സംസാരിച്ചുകൊണ്ട് നമ്മുടെ മലയാള ഭാഷയെ നമുക്ക് കൂടുതൽ സ്നേഹിക്കുവാനും നമുക്ക് കൂടുതൽ അറിവുകൾ മലയാള ഭാഷയിൽ നിന്നു ലഭിക്കുവാനും ഒക്കെ സാധിക്കും കാരണം മലയാളത്തിലാണ് ഒത്തിരി ഒത്തിരി മലയാള ഭാഷ വഴിയാണ് ഒത്തിരി മഹാന്മാർ വളർന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് മലയാള ഭാഷയിൽ തുഞ്ചത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയെ പോലെ നല്ലൊരു ഭാഷ വേറെയില്ല